ഒരു ഏഴുത്ത് എന്ന് പറയുന്ന സംഗതി ഒരു കരിയറാക്കി കൊണ്ടപോകുന്ന ഒരു ആളല്ല ഞാൻ എങ്കിൽ പോലും എഴുതാൻ ഇഷ്ടമാണ് എഴുത്തൊരു കരിയർ ആക്കാനുള്ളൊരു ഓപ്ഷൻ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനത് സൈഡായിട്ട് എപ്പൊഴെങ്കിലും ഒക്കെ സമയം കിട്ടുന്ന സമയത്ത് എഴുതാറാണ് പതിവ് പിന്നെ എഴുതാൻ ഞാൻ പ്രിഫറ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് ഒറ്റക്കാകുമ്പോഴാണ് എഴുതാൻ ഒരു എഴുതാനുള്ള മനസ്സിൽ നമ്മൾ ഒറ്റക്ക് ഒരു അത്യാ ഒരു സൗണ്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഒറ്റക്ക് റൂമിലാണെങ്കിൽ പോലും ഒറ്റക്കാണെങ്കിൽ അത് എഴുതാനും വളരെ സഹായിക്കും എൻ്റൊരു പേഴ്സണൽ അഭിപ്രായം പറയാണ് അപ്പം ഞാനങ്ങനെയാണ് സാധാരണ എഴുതാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരിക്കുകയാണെങ്കിലാണ് എനിക്കെന്താണ് എഴുതാനൊക്കെ ഒരു വളരെ എന്താ പറയുക അനുയോജ്യമായ ഒരു സമയം എന്ന് പറയുന്നത് പിന്നൊരു പ്രത്യേക സ്ഥലത്ത് ഇരുന്ന് എഴുതുക എന്നുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ശീലം അങ്ങനൊന്നും ഇല്ല അ ഒരു ഒറ്റക്ക് ആകണം അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒറ്റക്കൊരു സ്ഥലത്ത് ഇരുന്ന് ആകണം എന്നുള്ളൂ അതിനൊരു പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു സ്ഥലം ഇന്ന സ്ഥലം പ്രിഫറ് ചെയ്യാ അങ്ങനെയുള്ള ഒരു സംഗതികളൊന്നും എന്താ പറയുക ഇല്ല എന്നിരുന്നാലും ഒറ്റക്ക് എന്നാലും ഒരു പ്രത്യേക സ്പേസ് കാര്യങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ചെല ആളുകൾക്ക് ചില സഥലത്ത് ചില ഒരു സലത്ത് ഇപ്പം എന്താ പറയുക ഹിച്ച് ഹൈക്കിങ് ഒക്കെ ചെയ്ത് ഈ മരമുകളിലൊക്കെ പോയിരുന്ന് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ആ ശീലമില്ല അതുപോലെുള്ള എനിക്കങ്ങനൊരു ആവശ്യവും ഇല്ല എഴുതാൻ നല്ല ഒരു തീം മനസ്സിൽ നല്ല ഒരു കഥ അല്ലെങ്കിൽ നല്ലൊരു ആശയം മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞൊരു മുറി അധികം സൗണ്ടും അധികം ശബ്ദകോലാലങ്ങളൊന്നും ഇല്ലാത്തൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല വൃത്തിയിൽ ഒരു കഥ എഴുതി അതൊരു പൂർണ്ണതയിലും ശ്രമിക്കും പിന്നെ പരമാവധി ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കഥ എഴുതുകയാണെങ്കിൽ അതൊരു ഒന്നോ രണ്ടോ മൂന്നോ ഇരുത്തത്തിൽ തന്നെ തീർക്കുക എന്നുള്ളതാണ് ഒരുപാട് ലോങ്ങ് ലാസ്റ്റായിട്ട് പോകുന്നൊരു ശീലം ഇല്ല ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ടച്ച് വിട്ട് പോവും അതുമായിട്ടുള്ളൊരു ബന്ധം വിട്ട് പോവും പിന്നെ അത് ഇങ്ങനെ ഒരു എന്താ പറയുക ബന്ധം വിട്ടു പോകുമ്പം പിന്നെ അതിങ്ങനെ ഇങ്ങനെ നീണ്ട് നീണ്ട് പോയി പിന്നെ അവസാനം അത് ഇല്ലാതാവുന്ന രൂപം പൊതുവെ ചില സമയത്തൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അനുഭവം ഉള്ളതാണ് അപ്പം കൂടുതലും ഒരു മൂന്നോ നാലോ ഇരുത്തത്തിൽ തീർക്കാവുന്ന രൂപത്തിൽ കഥകൾ എഴുതുക എന്നുള്ളതാണ് ഒരു എന്താ പറയുക സാധാരണ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ സമയം ആണ് പ്രധാനം സമയം കിട്ടുമ്പോഴാണതൊക്കെ ചെയ്യുക ഇപ്പത്തെ ഒരു നിലക്ക് നോക്കുമ്പോൾ സമയം വളരെ കുറവാണ് എങ്കിലും പരമാവധി വായിക്കുക എഴുതുക എന്നുള്ളൊരു രൂപത്തിലോട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു മുന്നോട്ട് മുന്നോട്ട് പോകുന്നത്